ആ ഞാന് നിങ്ങളുടെ അവിടെന്നൊരു പ്ലേ സ്റ്റേഷൻ ഫൈവ് ബുക്കെയ്തിട്ടുണ്ടായിരുന്നു അതൊരു അഞ്ചു ദിവസം മുമ്പ് ബുക്കെയ്തതാണ് അപ്പോള് മൂന്നു ദിവസത്തിനുള്ളിൽ വരുമെന്നാണ് പറഞ്ഞിരുന്നെ അപ്പോള് അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാന് വേണ്ടിയിട്ടാണ് അപ്പോള് ഞാൻ ഓൺലൈനായിട്ടാണത് ബുക്കെയ്തിരിക്കുന്നത് അപ്പോഴത് എന്നത്തേക്കതവിടുന്ന് ഡെലിവറി ആയിട്ടുണ്ടോ എത്ര ദിവസം വേണ്ടിവരും എപ്പോഴാണ് ഇവിടെ വരുന്നത് എന്നറിയാന് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞ സമയം കഴിഞ്ഞു അതുകൊണ്ടാണ് ചോദിക്കുന്നത് എത്ര ദിവസത്തിനുള്ളിൽ വരും എന്നുള്ളതൊന്നറിയാൻ സാധിച്ചാൽ നന്നായിരുന്നു